ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്രപ്രധാനമായി നടന്ന സംഭവങ്ങൾ ഒന്നും ഇല്ല പിന്നെ അത് എന്ന് പറഞ്ഞാൽ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കള്ള കള്ളൻ വരുന്നതും കള്ളൻ വരുന്നതൊരു സംഭവം തന്നെയാണ് ഇവിടെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും ആയുധങ്ങൾ ഒക്കെ ആയിട്ടാണ് കള്ളൻ രാ രാത്രിയും പകലെന്നൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് വരിക വീട്ടിലുള്ള സാധനങ്ങളും ആൾക്കാരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതു സ്വാഭാവികമായിട്ട് എല്ലാ പ്രദേശത്തും ഗ്രാമത്തിലൊക്കെ ഉള്ളതാണ് അതേപോലെ നമ്മുടെ നാട്ടിലും ഉണ്ട് അങ്ങനെ ഒന്ന് ഒരു കള്ളൻ ഒരു കള്ളനായി പോയി ഇന്ന് ഒരു കള്ളൻ എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് കള്ളൻമാരുണ്ട് അതിൽ ഈ രാത്രി ആകുമ്പോഴാണ് അവർ ആയുധങ്ങളും മാരകായുധങ്ങളും പിന്നെ മാരകായുധങ്ങളും പിന്നെ എന്തെങ്കിലും മുളക് പൊടിയും എല്ലാം ആയിട്ട് വീട്ടിലേക്ക് വരുന്നത് ആ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുകയും കവർച്ച ചെയ്യുകയും ചെയ്തിട്ടാണ് പോവുകയാണ് അവർ ചെയ്യുന്നത് അവരുടെ സ്ഥിരമായ ജോലി